പാട്ടിനെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തികൾ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ കാണുമെന്ന് ഇല്ല നമ്മൾ കാണുന്ന എന്തിലും ഒരു സംഗീതാത്മകത നമുക്ക് കാണാൻ സാധിക്കും മഴയിലാണെങ്കിലും കാറ്റിലാണെങ്കിലും ഒക്കെ നമുക്ക് പുഴയുടെ ഒഴുക്കിലാണെങ്കിലും ഒക്ക നമുക്ക് കവിതകളൊക്കെ സംഗീതമൊക്കെ കാണാൻ സാധിക്കുന്നതുകൊണ്ട് പാട്ട് എല്ലാ മനുഷ്യൻ്റെയും മനസ്സിനെ ആകർഷിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് പാട്ട് പാടാൻ വലിയ കഴിവൊന്നും ഉള്ള വ്യക്തിയല്ല പക്ഷേ പാട്ട് എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടപ്പെടുന്നത് ക്ലാസിക്കൽ മ്യൂസിക്കുകളോടാണ് ഈ ഇപ്പോഴത്തെ ഈ ഡപ്പാംകൂത്ത് പാട്ടിനേകാട്ടിലും ഇഷ്ടം അല്ലെങ്കിൽ മെലഡി സോങ്ങുകളാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതിനൊക്കെ എന്നെ നമ്മുടെ ഇത് വാദ്യമേളങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ മേളം അങ്ങനെയൊക്കെ ഉള്ളത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിന്നെ സക്കീർ ഹുസൈൻ്റെ തബല അതൊക്കെ കേൾക്കാനൊരു പ്രത്യേക സുഖമാണ് അതൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ നല്ല കടും ചായ ഒക്കെ കുടിച്ചുകൊണ്ട് സക്കീർ ഹുസൈൻ്റെ തബല ഒക്കെ കേട്ടുകൊണ്ട് മഴയത്തോട്ട് നോക്കിയിരിക്കാൻ എന്തൊരു പ്രത്യേക ഫീൽ തന്നെയാണ് നമ്മുടെ മനസ്സ് പോലും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നൊരു ഫീൽ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള സംഗീതങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സ് പാടാനിഷ്ടം എൻ്റെ മക്കളുടെ കൂടെ വീട്ടിൽ ഇരുന്ന് അന്താക്ഷരി കളിക്കാനാണെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാനും മക്കളും കൂടെ ഇരുന്ന് അന്താക്ഷരി കളിച്ചാൽ മണിക്കൂറുകൾ പോകുന്നത് പോലും അറിയില്ല ഞങ്ങൾ ചിലപ്പം രണ്ട് രണ്ടരയും മൂന്നും മണിക്കൂർ മുറിക്കകത്ത് ഇരുന്ന് അന്താക്ഷരി കളിക്കാറുണ്ട് അങ്ങനെയൊക്കെ കളി അങ്ങനെയുള്ള പാട്ടുകളാണെനിക്ക് അതുകൊണ്ട് പഴയ ഞാൻ പഴയ സോങ്ങുകളൊക്കെ പാടും അവർ പുതിയ സോങ്ങുകളൊക്കെ പാടും പ താളവും ലയവും ലയം ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ പാട്ട് പാടി തകർത്ത് വീട്ടിൽ ഇരുത്താറുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ഉതാണ് പിന്നെ എൻ്റെ മകൾ ഒരുവിധം നന്നായിട്ട് പാട്ട് പാടും ഇളയ മോളും നന്നായിട്ട് പാട്ട് പാ ഒരുവിധം പാട്ട് പാടും പക്ഷേ ഇളയ മോളുടെ ഭാഷ ശരീ ശൈലിയുടെ രീതി ഞാ ഒരുവിധം പാശ്ചാത്യ ശൈലിയിലുള്ള സംസാരമാണ് അവൾ സംസാരിക്കുന്നത് ശരിക്കും ഫ്ലൂവെൻറ് ആയിട്ട് മലയാളം സംസാരിക്കുമ്പോളും പാശ്ചാത്യശൈലി കയറി വരാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവളെ യൂറോപ്യൻ പാട്ടുകാരിയായിട്ടാണ് ചിത്രീകരിച്ച് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പം അവളുടെ പാട്ടിനൊരു അതും ഒരു ഭംഗിയാണ് ഈ പാട്ടെന്ന് മനസ്സിലാവുന്നതെങ്ങനെ കേട്ടിട്ടിപ്പം നമ്മൾ പിന്നെ ഇംഗ്ലീഷ് സോങ്ങ്സ് കേട്ടാലും അല്ലെങ്കിൽ മലയാളം സോങ്ങ്സ് കേട്ടാലും ഹിന്ദി സോങ്ങ്സ് കേട്ടാലും ഭാഷയൊന്നും അറിയില്ലെങ്കിലും നമുക്ക് പാട്ടൊരു അതിൻറെ ഒരു മെലഡി നമുക്ക് ഭയങ്കര അട്ട്രാക്ഷൻ ആയിട്ട് തോന്നും പിന്നെ എല്ലാവരുടെയും പാട്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണം എന്നില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചിത്ര ചേച്ചിയുടെ പാട്ടൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം ഒത്തിരി ഒത്തിരി അത് പിന്നെ ക്ലാസ്സിക്കൽ മ്യൂസിക്ക് എന്ന് പറഞ്ഞാൽ യേശുദാസിൻ്റെ ക്ലാസിക്കൽ മ്യൂസിക്ക് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനെ ശരിക്കും അവർ ഇരുത്തി പ് നമ്മൾ നമ്മളെ വേറൊരു ലോകത്തിലേക്ക് അവരൊക്കെ കൊണ്ടുപോയിക്കോളും അതിലൊക്കെ തന്നെ ഈ പാട്ടിനെ ഒത്തിരി ഡിപെൻഡ് ചെയ്യുന്ന കണക്ക് സിനിമകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം തന്നെ മേഘമൽഹാർ പിന്നെ അങ്ങനെയുള്ള സിനിമകൾ അതൊക്കെ കണ്ടുകഴിയുമ്പം അല്ലെങ്കിൽ നമ്മൾ ഹിസ് ഹൈനെസ്സ് അബ്ദുള്ള അത് പോലെയുള്ള സിനിമകളൊക്കെ കണ്ട് കഴിയുമ്പം നമ്മൾ അറിയാതെ നമുക്കും ഉള്ളിലൊരു പാട്ടുകാരിയൊക്കെ ജനിക്കുന്നതായിട്ട് നമുക്ക് ചേരും നമ്മൾ പാട്ടൊന്നും പാടില്ലെങ്കിലും നമ്മളൊരു പാട്ടുകാരിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ആ അങ്ങനെയൊക്കെ പാട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു ഒരു വല്ലാത്തൊരു വികാരമായിട്ടാണ് എനിക്ക് പാട്ടിനെ തോന്നാറുള്ളത് പിന്നെ എ എല്ലാവരും പാട്ട് കേൾക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ പള്ളിയിലൊക്കെ കൊയറിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പാടുന്ന പിള്ളേർ ഉണ്ട് അവരുടെ പാട്ട് കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ് നമ്മളും മൂളി പാട്ട് ഇരുന്നുകൊണ്ട് പാടുമെങ്കിലും അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് പാടുന്നത് കേൾക്കാനും നമുക്ക് ഇഷ്ടമാണ് പാട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സു എല്ലാവർക്കും സുഖിക്കുന്നൊരു കാര്യമാണ്